അതേ പറഞ്ഞോളു ആ ഓക്കേ എന്തായിരുന്നു പനി എത്ര ദിവസമായി തുടങ്ങിയിട്ട് വണ് വീക്ക് എവിടേലും കാണിച്ചിരുന്നോ ആ ഓക്കേ കുറയിന്നില്ല ഓക്കേ ഇപ്പോൾ എത്ര ദിവസം മരുന്ന് കഴിച്ചു കഴിച്ചിട്ടുണ്ടോ എന്നിട്ട് കുറയിന്നില്ല ഓക്കേ പനി മാത്രമേ ഉള്ളോ അതോ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടോ ചർദ്ദി ഉണ്ടല്ലേ പുറത്തുന്ന് ഫുഡ് അങ്ങനെ എന്തെങ്കിലും കഴിച്ചിരുന്നോ കയിച്ചിരുന്നു അല്ലെ ചർദ്ദി തുടങ്ങിയിട്ട് രണ്ട് ദിവസമെ ആയുള്ളോ അതോ ഒരാഴ്ച്ച ആയിട്ട് ചർദ്ദി ഉണ്ടോ രണ്ട് ദിവസമെ ആയുള്ളൂ അല്ലെ ഓക്കേ അപ്പോൾ ചർദ്ദി ചിലപ്പോൾ ഫുഡ് പൊയ്സണോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പനി പിന്നെ ഇപ്പോൾ വൈറല് ഫീവര് ഭയങ്കരമായിട്ട് കണ്ട് വരുന്നുണ്ട് അപ്പോൾ വൈറല് ഫീവര് അങ്ങനെ എന്തെങ്കിലുംലും ആയിരിക്കാനാണ് ചാന്സ് ഓക്കേ നിങ്ങൾക്ക് ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ അത് വൈറല് ഫീവര് ആകാനാണ് ചാന്സ് പാരസെറ്റമോള് കഴിച്ചിട്ട് കുറയുന്നില്ലെങ്കില് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റല് വരെ വരേണ്ടി വരും അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് റഫര് ചെയ്യാന് ഒന്നുഇല്ല പിന്നെ നമുക്ക് ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം വേറെ എന്തെങ്കിലും ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടോന്ന് ഓക്കേ അപ്പം നമുക്ക് കറക്റ്റ് റിസള്ട്ട് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാന് പറ്റുള്ളൂ നിങ്ങൾ നാളെ ഫ്രീയാണോ ആ ഓക്കേ എന്നാൽ ഞാന് നാളെ ഒരു പത്ത് മണിയാകുമ്പോൾ ബുക്ക് ചെയ്തിടാം പേരെന്തായിരുന്നു ആ ഓക്കേ അപ്പോൾ നമ്മൾ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴ്ത്തെക്കും വരുമോ ഞാന് എന്തായാലും ബുക്ക് ചെയ്തേക്കാം അപ്പോൾ നിങ്ങൾ വന്നിട്ട് നമുക്കൊന്ന് കണ്സള്ട്ട് ചെയ്തിട്ട് നമ്മളെ ടെസ്റ്റ് ചെയ്യാനുള്ള റിപ്പോര്ട്ട്സെല്ലാം കൂടെ കലക്റ്റ് ചെയ്തിട്ട് ഒന്ന് കാണിച്ചാൽ മതി അപ്പോൾ ഞാന് നോക്കീട്ട് കറക്റ്റ് ടാബ്ലെറ്റ്സും കാര്യങ്ങളൊക്കെ റഫര് ചെയ്യാം എന്നിട്ട് അത് കഴിച്ചിട്ട് നിങ്ങള് ഒരാഴ്ച്ച കഴിച്ച് നോക്കൂ എന്നിട്ട് കുറവ് ഇല്ലെങ്കിൽ നമുക്ക് ഡീറ്റൈൽ ആയിട്ട് വേറെ ചെക്ക് അപ്പ് ഒക്കേ ചെയ്തുനോക്കാം അപ്പോൾ നാളെ വരാന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോല്ലെ അപ്പം നാളെ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴ്ത്തേക്കും ഒന്ന് ഹോസ്പിറ്റലിലേക്ക് വരൂക ബാക്കി നമുക്ക് ഇവിടെ വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് ബാക്കി പറഞ്ഞു തരാം ഓക്കേ എന്നാൽ നാളെ വരുവേട്ടോ